മുടിയുടെ സംരക്ഷണത്തിനായി ഞങ്ങളുടെ നാട്ടിൽ ഉള്ള പ്രശസ്തമായ ഒരു രീതിയെന്ന് പറയുന്നത് താളിയിട്ട് കുളിക്കുകയെന്നുള്ളതാണ് ഈ ചെമ്പരത്തി ഒക്കെ ഇ അരച്ച് താളി ഉണ്ടാക്കി ആ താളി തലയിൽ പിടിപ്പിച്ച് കുറച്ച് നേരം വെച്ച് ഒരു ഒരു മണിക്കൂറിന് ശേഷം കുളിക്കുക കുളിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുടിയിലെ താരനൊക്കെ ഒഴിവായി നല്ല ആരോഗ്യമുള്ള മുടി ആയി നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ് അപ്പോൾ ഈ താളി ഒക്കെ ഇട്ട് കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് മുടിയുടെ അഴുക്കും മാറും താര എല്ലാം പൂർണമായിട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് നല്ല ആരോഗ്യമുള്ള മുടി തന്നെ നമുക്ക് ലഭിക്കും പിന്നെ അതുപോലെ തന്നെ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നവരുമുണ്ട് ഈ കുറെ ആയൂർവേദ മരുന്നുകളൊക്കെ തുളസി കയ്യോന്നിയം എന്നൊക്കെ പറയുന്ന പോലെ തുളസി എല്ലാം കൂടി കൂട്ടി എടുത്തു ഉള്ളിയൊക്കെ ഇട്ട് എണ്ണ കാച്ചി തലയിൽ തേച്ച് പിടിപ്പിച്ച് അതും നല്ലതാണ് എണ്ണ കാച്ചിയെടുത്തിട്ട് ആ എണ്ണ എന്നും ഉപയോഗിക്കും കുളിക്കുന്നതിന് മുമ്പ് ആഴ്ചയിൽ രണ്ട് ഉപയോഗിക്കുന്നവരുമുണ്ട് ആഴ്ചയിൽ നാലൊക്കെ ഉപയോഗിക്കുന്നവരുമുണ്ട് അങ്ങനെ അങ്ങനെ ഉപയോഗി ആ എണ്ണ തേച്ചും കുളിച്ചാൽ മുടി മുടി വളരാനുമൊക്കെ വളരെ നല്ലതാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് എനിക്കുള്ളറിവുള്ളത് പിന്നെ ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് പയറു പൊടിയൊക്കെ തേക്കുന്നവരെ എനിക്കറിയാം എൻ്റെ കൂട്ടുകാർ പലരും അങ്ങനെ പയറു പൊടിയൊക്കെ തേച്ച് കുളിക്കുന്നതായിട്ട് സോപ്പ് ഉപയോഗിക്കാതെ പയറു പൊടി ഉപയോഗിക്കും ആ പയറു പൊടി ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ചർമ്മത്തിൻ്റെ ആ വലിച്ചിലൊന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല സോപ്പ് ഉപയോഗിക്കുമ്പം ഒരു ഒരു ഈർപ്പം ഒന്ന് നിലനിൽക്കാത്ത രീതിയിലങ്ങ് മാറത്തില്ലേ പക്ഷേ ഈ പയറു പൊടിയൊക്കെ ഉപയോഗിച്ചാൽ അതൊക്കെ ആയൂർവേദത്തിൻ്റെ ഒരു പ്രോഡക്ട് ആയതുകൊണ്ട് വളരെ നല്ല രീതിക്ക് തന്നെ നമുക്ക് അത് നല്ല രീതിക്ക് തന്നെ നമ്മളെ ചൊറിച്ചിലും ഒക്കെ മാറും അങ്ങനെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ചൊറിച്ചിലൊന്നും വരത്തില്ല ഈ പയറു പൊടിയൊക്കെ ഉപയോഗിച്ച് കുളിക്കുക ഒക്കെ ചെയ്താൽ അപ്പോൾ അതൊക്കെ വളരെ നല്ലതായിട്ടാണ് എനിക്ക് ഞാനിങ്ങനെ കേട്ടിരിക്കുന്നത് ഞാന് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷേ ഇവിടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞുള്ള ഒരറിവാണ്